ഹലോ ഇത് ക്യാബിൻ്റെ ഓഫീസല്ലേ ആ അതെയതെ ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് എറണാകുളം വരെ പോകാനായിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതന്നെ ആ കെ എൽ പതിനൊന്ന് എ ആർ അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ആ ആ വണ്ടിയിലാണ് ആ ഓക്കെ ഓക്കെ ആ എനിക്ക് ആ വണ്ടിതന്നെ ഒന്നുകൂടെ വേണം ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് എറണാകുളത്ത് എത്തിയപ്പോഴാണ് ശ്രദ്ധിച്ചത് എന്റെ വാലറ്റ് ഞാൻ വീട്ടിൽ വച്ച് മറന്നു പോയി അപ്പോൾ എനിക്കതൊന്ന് തിരിച്ചു പോയി എടുക്കണമായിരുന്നു അപ്പോൾ ആ ക്യാബ് ഒന്ന് കിട്ടാവോ കിട്ടുവോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഓട്ടത്തിലാണല്ലേ അല്ല ആ ആ ക്യാബ് എപ്പോഴാണ് ഫ്രീ ആവുക ആ ഇല്ല എനിക്ക് നാളെ മോർണിംഗ് ആണ് റിട്ടേൺ വരേണ്ടത്ത് അപ്പോൾ നാളെ മോർണിംഗത്തേക്ക് ക്യാബ് എത്തുവായിരിക്കുമല്ലേ ആ ഹാ ഹാ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ നാളെ ഒരു ഒൻപതരയൊക്കെ ആകുമ്പോഴത്തേക്കും എന്നെ പിക്ക് ചെയ്ത് ഇവിടത്തന്നെ അയാളോട് ഒന്ന് വരാൻ പറഞ്ഞ ഛെ എന്നെ ഇന്ന് ഇറക്കി വിട്ടവിടെത്തന്നെ ഒന്ന് വരാൻ പറഞ്ഞാൽ മതി ആ ഞാൻ അവിടെ എത്തിക്കോളാം ഒൻപതരയാകുമ്പോഴത്തേക്കും ആ എന്റെ നമ്പർ അയാൾക്ക് കൊടുത്തോളൂ ആ ഓക്കെ താങ്ക് യു താങ്ക് യു